ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും വളരെയേറെ വ്യത്യസ്ഥമാണ് സംസ്കാരങ്ങൾ ഇന്ത്യ എന്തൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചോദിക്കുമ്പോഴും വളരെ വളരെ വ്യത്യസ്ഥമായ രീതിയും കാഴ്ച്ചപ്പാടും നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം എല്ലാ നാനാജാതി മതസ്ഥരേയും ഒന്നിച്ചു നിർത്തി നിർത്തുന്നൊരു ഭാരതാംബയാണ് നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാന ഒരു വലിയ പാരമ്പര്യം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ വ്യത്യസ്ഥമായ വേഷവിധാനങ്ങൾ ഉൾക്കൊളളുന്ന ഒരു സംസ്ഥാനങ്ങൾ ഓരോ സംസ്ഥാനത്തിൽ ആളുകൾ എവിടെച്ചെന്നാലും നമുക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ കേരളത്തനിമയെ വിളിച്ചോത്തുന്ന രീതിയിലുള്ള സെറ്റുമുണ്ട് ഷർട്ട് മുണ്ട് ഇതാണവരുടെ പ്രധാനപ്പെട്ട വേഷവിധാനം മറ്റു സംസ്ഥാനത്തിൽ വരുമ്പോൾ സിക്കു മതസ്ഥരാണെങ്കിൽ അവർക്ക് തലപ്പാവ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ഥ സംസ്കാരങ്ങളിലൂടെയും പാരമ്പര്യങ്ങളാണ് കാണുന്നത് വ്യത്യസ്ഥ രീതി സംസ്ഥാനം അവരവരുടെ രീതിയിൽ കലാരൂപങ്ങളുണ്ട് വ്യത്യസ്ഥ മായ ഫാഷനുണ്ട് മറ്റു പല വിധത്തിലുള്ള ഭാഷകൾ കണ്ടെത്തി ഭാഷകളെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഇത് ഇന്ത്യ രാജ്യം ഇന്ത്യാ രാജ്യത്തെ സംബന്ധിച്ചു പറയുമ്പോ പല രീതിയിലുള്ള വ്യത്യസ്ഥകൾ വ്യത്യസ്ഥമായ ഭക്ഷണ രീതികൾ വ്യത്യസ്ഥമായ വസ്ത്രധാരണ രീതികൾ വ്യത്യസ്ഥമായ ഭാഷ ഇങ്ങനെ പല വിധത്തിൽ ഉള്ളതാണ് പല സംസ്ഥാനം പല രീതിയിലുള്ള പല തരത്തിലുള്ള കൃഷികൾ പല രീതിയിലുണ്ട് മൃഗ സംരക്ഷണങ്ങൾ ഇത് ഓരോ സംസ്ഥാനവും വ്യത്യസ്ഥമായ കാലാവസ്ഥകളാണ് പല പല രീതയിലുള്ള വ്യത്യസ്ഥതകളാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യാ രാജ്യം ഇന്ത്യാ രാജ്യത്തെ പല വ്യത്യസ്ഥ മേഖലകളിൽ നിന്നുള്ള വരുമാനം ആർക്കുവേണ്ടിയാണ് സമ്പന്നമാക്കുന്നത് കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ ഭരണഘടനയെതന്നെ പറയുന്നുണ്ട് കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു ശക്തി എന്നുതന്നെ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ സാംസ്കാരിക വ്യത്യസ്ഥ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട് ഈ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഓണമൊരു വലിയൊരു ആഘോഷമാണ് മറ്റു സംസ്ഥാനങ്ങൾക്ക് വേറൊരു ദസറ ഹോളി ഇങ്ങനെ പല വ്യത്യസ്ഥ രീതിയിലുള്ള ആഘോഷങ്ങളാണ് പല സംസ്ഥാനങ്ങളിലുണ്ട് നാനാജാതി മതസ്ഥർ ഒരുമിച്ചു ജീവിക്കുന്നു ഇവരുടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റേതുമായ ഒരു ഒരു സന്ദേശം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് പ്രത്യേകമായി ഭരണ ഭരണഘടനേൻ്റെ രീതിയിൽ തന്നെ നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഭർണഘടനയുണ്ട് ഇന്ന് പാവപ്പെട്ടവനെന്നോ സമ്പന്നനെന്നോ എന്നൊന്നും കാണാതെ സാധാരണക്കാരനായ മനുഷ്യരെ നെഞ്ചോടു ചേർക്കുകയും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഭർണഘടന രീതിയിലുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടും അവരെ കൂടുതൽ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഭർണഘടന രീതികളുണ്ട് കൂടുതൽ വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾ ഇവിടെ കൂടുതൽ കൂടുതൽ വ്യത്യസ്ഥ ഭാഷകളിൽ ആണെങ്കിൽപ്പോലും കൂടുതൽ സ്കൂളുകൾ ആരംഭിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ജനങ്ങൾക്ക് പല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ വരുമാന മാർഗ്ഗങ്ങളെ കൂടുതൽ ലക്ഷ്യ പ്രാപ്തികളിലേക്ക് നയിക്കുന്നതിനു വേണ്ടി സഹായിക്കുന്നുണ്ട് ഇവയെല്ലാം ഒരു സാംസ്കാരികമായ രീതിയിലൂടെ സംസ്കാരത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ എല്ലാവരേയും ആ പ്രദേശത്തിന് ഉയർച്ചയ്ക്കുവേണ്ടി പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും കാത്തുസൂക്ഷിച്ച് കൊണ്ടും അതാത് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിർത്താൻ ഇന്ത്യ രാജ്യത്തിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ ഇത് ഇത്തരത്തിൽ ഇന്ത്യയിൽ പല രീതിയിലുള്ള വ്യത്യസ്ഥതയാർന്ന സംസ്ഥാനങ്ങളെ ഒന്നിച്ചു നിർത്താൻ ഇന്ത്യ രാജ്യത്തങ്ങനെ ലോകത്തിൽ മാതൃകയാക്കി തീർക്കുവാനായിട്ടും ഇന്ത്യ രാജ്യത്തിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും ചാരുതാർത്ഥ്യം